ആ ഹലോ ആരാണ് ആ ഫോട്ടോഗ്രാഫർ ആണ് പറഞ്ഞോളൂ എന്താണ് ഏത് എന്ന് എന്നത്തേക്ക് വേണ്ടി ഉള്ളതാണ് ആ ജൂലൈ ആ ആ ഹാ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു ആ പറഞ്ഞോളൂ എന്താണ് വിളിച്ചത് ഡീറ്റെയിൽസ് ആയിട്ടാണോ നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് ഏതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് അത് ചോദിച്ചാൽ മതി നമ്മൾ ഇപ്പോൾ പറഞ്ഞുതരാം ആ ഉണ്ട് നമ്മ നമ്മുടെ കൈ ഡ്രോൺ ഉണ്ട് ആ ജിമ്പൽ ഉണ്ട് നമ്മുടെ കയ്യിലിപ്പം പുതിയതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അത് പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മൾ എല്ലാം ചെയ്ത് തരുന്നതാണ് സേവ് ദ ഡേറ്റ് എന്നാണ് ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യം ഉള്ളത് നമുക്ക് ഇനിയിപ്പം എല്ലാ ദിവസവും ഫ്രീ ആണ് നമുക്ക് ഇപ്പം വലിയ പണിയൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നാം തീയതി സേവ് ദ ഡേറ്റ് ഓക്കെ നിങ്ങൾ എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത് സ്പോട്ട് എങ്ങനെയാണ് മറൈൻ ഡ്രൈവിൽ ഓക്കെ ഓക്കെ അതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അതല്ല ചേട്ടാ മറൈൻ ഡ്രൈവിൽ ആവുമ്പോൾ നാട്ടുകാർ മൊത്തം കാണും അപ്പോൾ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമോ അതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലമല്ലേ നമ്മൾ ഇപ്പം സേവ് ദ ഡേറ്റിന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലം പറയും മറൈൻ ഡ്രൈവ് ആണെങ്കിൽ മറൈൻ ഡ്രൈവ് നിങ്ങൾക്ക് കുഴപ്പം ഇല്ലെങ്കിൽ ഞങ്ങൾക്കും കുഴപ്പമില്ല റിസോർട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് എവിടെ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളാണ് പൈസ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതും അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം പറയുക നമ്മൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നതായിരിക്കും മറൈൻ ഡ്രൈവ് തന്നെ ഓക്കെ എൻ സമയം എപ്പോഴാണ് ഞങ്ങൾ വരേണ്ട സമയം ഓക്കെ ചേട്ടാ ഞങ്ങൾക്ക് ഇപ്പോൾ ആണോ ആ ഓക്കെ വേറെ ഞങ്ങൾ എന്താണ് ഈ ഒരു സേവ് ദ ഡേറ്റ് ഞങ്ങളോട് പറയാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും ഞങ്ങളോട് സേവ് ദ ഡേറ്റ് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വെഡ്ഡിങ്ങ് ഫോട്ടോഗ്രഫി മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പം മൊത്തത്തിലൊരു ഒരു സി ആറിന് ഒതുക്കാം ചേട്ടനായത് കൊണ്ടൊരു ഒന്നര സി ആറിന് ഓക്കെ ഓക്കെ ഏട്ടാ അപ്പോൾ ഒന്നാം തീയതി മറൈൻ ഡ്രൈവിൽ വെച്ച് കാണാം ഓക്കെ ഏട്ടാ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരണം കേട്ടോ എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റൂ ഓക്കെ ഏട്ടാ